തെരഞ്ഞെടുപ്പ് സമയത്ത് നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഈ നോയ്സ് പൊലൂഷൻ ആണ് ഭയങ്കര ബഹളമാണ് ലൗഡ് സ്പീക്കറിൻ്റെ ശബ്ദം രാവും പകലും ഇല്ലാതെ ബഹളമാണ് അതൊരു പ്രശ്നം ആണ് പിന്നെ ഈ പൊതു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഈ പാർട്ടിക്കരുടെ സംഘർഷം അതും ഒരു ബുദ്ധിമുട്ടാണ് അത് കണ്ട് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിച്ചാലും അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ അവർ ചെയ്യാറുണ്ട് അത് നമുക്ക് ഒരു പ്രശ്നമാണ് അല്ലാതെ പിന്നെ കാമ്പയിൻ ഒക്കെ അവർ സമാധാനപരമായിട്ടാണ് നടത്താറ് അതിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് അവരത് ഇതുവരെ ചെയ്തു ഞാൻ കണ്ടിട്ടുള്ളത് ആ ഈയൊരു നോയിസ് പൊലൂഷനും പിന്നെ ഈ പരസ്പരമുള്ള ഈ ശത്രുതയും അവരൊഴിവാക്കുന്നതാണ് ബാക്കിയുള്ളവർക്കും കൂടി നല്ലതെന്ന് തോന്നുന്നു അതാണ് എനിക്ക് പറയാനുള്ളൊരു പ്രശ്നം